സംസ്ഥാനത്തിന്റെ പുറത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് മൈസൂര് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊൾ അത് എനിക്കൊരു നല്ല അനുഭവമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ലോറിയില് കേറീട്ട് പോയതായിരുന്നു ലോറി ഡ്രൈവറായിട്ട് അപ്പൊൾ അതൊരു എന്താ പറയുക ട്രിപ്പിംഗ് അല്ലെങ്കി ഒരു അങ്ങനത്തെ ഒരു മോഡല്ല എന്നാലും എനിക്കതൊരു നല്ലൊരു അനുഭവമായിരുന്നു കാരണം ഇതുവരെ ഞാനങ്ങനെ പുറത്തുന്നും പോയിട്ടുണ്ടെങ്കിലും എന്താ പറയുക ട്രെയിനിലോ അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടാരുന്നത് ഇപ്രാവശ്യം ലോറിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊൾ വയനാട് ചുരം വഴി വയനാട് കേറി അവിടുന്ന് നേരെ മറ്റേ കർണാടക തമിഴ്നാട് ബോർഡറ് തമിഴ് കർണാടക അങ്ങനെയാണ് ഇപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മൈസൂര്ക്ക് നല്ല കാട്ടുപാതയായിരുന്നു അതായത് നമുക്ക് കാട്ടുപ്രദേശങ്ങളിലും അവിടെ കാട്ടിലെ കുറെ കാഴ്ചകളും മാന് പിന്നെ കാട്ടുപോത്ത് ആന പിന്നെ മലയണ്ണാൻ അങ്ങനത്തെ കൊറേ മൃഗങ്ങളെ കാണാൻ പറ്റി പിന്നെ കുറെ കാട്ടിനുള്ളിൽ കൂടെ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഫോറസ്റ്റ് ഏരിയ തന്നെയായിരുന്നു അപ്പൊൾ പിന്നെ മയിലുകള് പിന്നെ കാട്ടാനക്കൂട്ടം അങ്ങനത്തെ നല്ല രീതിക്കുള്ള കാഴ്ചകള് കാണാൻ പറ്റി കാട്ടിനുള്ളിലെ പഴങ്ങളു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി മരങ്ങള് വ്യത്യസ്തമായ രീതിയിലുള്ള പൂക്കള് അങ്ങനത്തെ കുറെ സംഭവം കാണാനും എന്താ പറയുക അ ആ ആസ്വദിക്കാനും പറ്റി അവിടെ ലോഡും കാര്യങ്ങളുമായിട്ട് പോയതാണ് മൈസൂര്ക്ക് എന്തായാലും നല്ല രീതിയിലുള്ള അനുഭവം ആയിരുന്നു അതന്ന് കിട്ടിയത്